ആ ആ മാം ഞാൻ ആണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആണ് എൻ്റെ പേര് ആദിത്യ ഞാനാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഫർദർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടീട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടീട്ട് ആയിരുന്നു വിളിക്കുന്നത് എനിക്ക് ഡിഗ്രി എടുക്കാൻ ആണ് താൽപ്പര്യം കേൾക്കാമോ എനിക്ക് ഫിസിക്സ് ഡിഗ്രി എടുത്ത് പഠിക്കാൻ ആയിട്ടാണ് താൽപ്പര്യം ഹലോ കേൾക്കാമോ ആ എനിക്ക് ഡിഗ്രി ആ ഡിഗ്രി സബ്ജെക്ട് എനിക്ക് ഫിസിക്സ് എടുക്കാനാണ് താൽപ്പര്യം കേൾക്കാമോ ഹലോ

ആ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ആ സയൻസാണ്

എൻ്റെ പ്ലേസ് എറണാകുളം ആണ് അപ്പോൾ അവിടെ ഏത് ഒക്കെ കോളേജ് ഉണ്ട് ഏത് കോളേജ് ആയിരിക്കും നല്ലത് എന്നൊക്കെ അറിയാൻ വേണ്ടീട്ടായിരുന്നു മാമിനെ ഇപ്പോൾ വിളിച്ചത് ആ ഓക്കെ ആ ആ മഹാരാജാസ് എനിക്ക് ഞാൻ കേട്ട് പരിചയം ഉണ്ട് അപ്പോൾ എനിക്ക് അവിടെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ട് പിന്നെ കട്ട് ഓഫ് ഒക്കെ ഉണ്ടോ ഇതിന് ആ ഓക്കെ അപ്പോൾ അവിടെ ആ ഓക്കെ ഓക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരുക ആ ഓക്കെ അപ്പോൾ ഈ ഫിസിക്സ് ഡിഗ്രി ചെയ്യാൻ വേണ്ടീട്ട് എത്ര പെർസെൻറ്റേജ് വേണം മാക്സിമം ആ ഓക്കെ ഓക്കെ ആ എനിക്ക് ഇപ്പോൾ എയ്റ്റി ഫൈവ് ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ കിട്ടുമായിരിക്കുമല്ലോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഉണ്ട് ഉണ്ട് ആ ഉണ്ട്

അതെയോ അപ്പോൾ അതിൻ്റെ സ്കീമ് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ

അതെയല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എന്തേലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയാവുമോ ആ ഓക്കെ ആ ഓക്കെ ശരി താങ്ക് യൂ മാം